ആ നമസ്കാരം ഞാൻ താമരശേരീന്നാണെ വിളിക്കുന്നത്

ആ എനിക്കൊരു വീഡിയോ എടുക്കാനായിരുന്നു ആ ആ ആ ഒരു പഴക്കം ചെന്ന വീടാണ് വേണ്ടത് ആ അതെ സൗകര്യവും കാര്യങ്ങളൊക്കെ ആ നമുക്ക് താമരശേരീൻ്റെ ഒരു അടുത്തായിട്ടുള്ള സ്ഥലത്തായിട്ട് മതിയാരുന്നു ആ ഞാന്തൊരു വീടാണ് നമ്മൾ നോക്കുന്നത്

ആ ഇത് എനിക്ക് വേണ്ടിയല്ല എന്റൊരു അ ആ എനിക്കെൻ്റെയൊരു ഫ്രണ്ടിന് വേണ്ടീട്ടായിരുന്നു ആ ആ അതെ അതും അതിനിവിടെ തന്നെയാണ് കോഴിക്കോട് ഇവിടെ തന്നെയുള്ളതാണെ ആ അവർക്കും ഈ കവിതാ കഥ അങ്ങനയൊക്കെ എഴുതാൻ വേണ്ടി തീരുന്നോടെയോ ആ

ആ ആ അതുപോലത്തെയാണ് നമ്മൾ നോക്കുന്നത്

ആ ഇത് എത്ര റേറ്റ് വരുവോ അങ്ങനെ ഒരു വീട് എടുക്കുവാണെങ്കിൽ ആ ആ ആ ഒരു ദിവസത്തിൽ ആ ആ എനിക്കൊരു കുറച്ച് ദിവസത്തേക്ക് അത് കൈന്നങ്ങനെ എടുത്ത് വേണ്ടത് ഒരാഴ്ച്ച ആ ഒരാഴ്ച്ചയൊക്കെ മതി ആ ആ ആ ആ അതങ്ങനെ മതി ഒരു ഇത് ഇരിക്കാനായിരുന്നു ആ ആ അതൊന്നും കുഴപ്പമില്ല ആ ആ ആ ആയിക്കോട്ടെ ഞാൻ വിളിക്കാം ആ ഞാൻ നോക്കീട്ട് വിളിക്കാം ശരി